ആയുർവേദം ഹോമിയോപതി എന്നിവയെക്കുറിച്ച് അറിയാം അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ആൾക്കാരതുപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾകൊണ്ട് മാറാത്ത പല അസുഖങ്ങളും നമ്മൾ ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുർവേദം ചികിത്സകൊണ്ട് മാറുന്നതായിട്ടും നമ്മളതുകൊണ്ട്തന്നെ അവിടെ പോകുവാനും ആ ചികിൽസ നേടുവാനും ഇടയാകുന്നുണ്ട് ആശുപത്രിയിൽ പോകാതെതന്നെ ആയുർവേദപരമായിട്ട് നമ്മുടെ അസുഖങ്ങളെ കുറയ്ക്കാനും എല്ലാം നമുക്ക് പറ്റും ഇംഗ്ലീഷ് മരുന്നുപോലെതന്നെ ഇപ്പോൾ ഉയർന്നുനിൽക്കുന്നതു തന്നെയാണ് ആയുർവേദവും ഹോമിയോപതിയും അതുകൊണ്ട് ആ ചികിൽസാരീതികളിലൂടെ ഒരുപാട് രോഗങ്ങൾ മുക്തി നേടിയതായിട്ട് നമ്മളറിയുന്നുണ്ട് അറിയപ്പെടുന്നു ഞാ ഞാനാണെങ്കിലും ഹോമിയോപതിയും ആയുർവേദവും നമ്മള് യൂസ് ചെയ്തിട്ടുണ്ട്